എന്നെ സംബന്ധിച്ചിടത്തോളം എഴുത്തില് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ളത് അത് എഴുത്തുകാരൻ ഒരുപാട് കഷ്ടപ്പെട്ട് എഴുതിയിട്ടും ഒരുപാടു പരിശ്രമിച്ചിട്ടും അതെവിടെയും പബ്ലിഷ് ചെയ്തുവരാത്തൊരു സാഹചര്യം അല്ലെങ്കിൽ ആരും തന്നെ വായിക്കാത്ത തന്നെ പ്രശംസിക്കാത്ത അത്തരത്തിലുള്ളൊരു സാഹചര്യം എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം തുടക്കകാലത്തൊരു വെല്ലുവിളിയാണ് പിന്നീട് ഒരുഴുത്തുകാരൻ കുറച്ചൊക്കെ എഴുത്തുകള് വന്നു പ്രശസ്തിയായതിനു ശേഷം അദ്ദേഹം മങ്ങിപ്പോവുക എന്നുള്ളതും ഒരു വെല്ലുവിളി തന്നെയാണ് എഴുതാൻ പ്രചോദനം എപ്പോഴും കിട്ടേണ്ടതുണ്ട് ഒരു വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ അയാൾക്ക് സ്കൂളിൽ നിന്ന് ടീച്ചർമാരുടെ ഭാഗത്തു നിന്നുകൊണ്ട് അല്ലെങ്കില്അദ്ധ്യാപകരുടെ കൂട്ടുകാരുടെയൊക്കെ ഭാഗത്തുനിന്നുകൊണ്ടുതന്നെ പ്രചോദനങ്ങൾ കിട്ടേണ്ടതുണ്ട് ഒരുപാട് വായനക്കാര് എഴുത്തുകാരവരുടെ ഫാൻസായിട്ടു നമ്മളിഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ എഴുത്തുകള് ഇതിൽനിന്നു പ്രചോദനം ഉള്ക്കൊള്ളേണ്ടതുണ്ട് പിന്നീട് എഴുത്തുകാരനുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് റൈറ്റേഴസ് ബ്ലോക്ക് അല്ലെങ്കില് ക്രിയേറ്റീവ് ബ്ലോക്ക് എന്നു പറയുന്ന അനുയോജ്യമായ സർഗാത്മക വിഷയം കണ്ടത്താന് എഴുത്തുകാരനു സാധിക്കാത്തൊരു സാഹചര്യം അല്ലെങ്കില് ഞാൻ തിരഞ്ഞെട്ത്ത വിഷയം മറ്റൊരാള് എഴുതിയ വിഷയമാണല്ലോ എന്ന സാഹചര്യം ഉദാഹരണത്തിനു പറയുകയാണെങ്കിൽ പല സിനിമാ സംവിധായകരും അല്ലെങ്കിൽ എഴുത്തുകാരും അവര് എഴുതാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വിഷയം പിന്നീട് മറ്റൊരു സിനിമ ഇറങ്ങിയ അതിൽ കാണുമ്പോഴുള്ള അവർക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് ഒരു മാനസിക വിഷമം ഒരു മാനസിക വെല്ലുവിളി ഇതൊക്കെ വലിയ പ്രശ്നങ്ങളാണ് അപ്പോള് ഈ സർഗാത്മക വിഷയം കണ്ടെത്താനുള്ള എഴുത്തുകാരൻ്റെ ബുദ്ധിമുട്ട് അത് ഇല്ലാതാക്കാൻ നമുക്കൊരുപാട് ഒരേ വിഷയത്തില്ത്തന്നെ പല ആസ്പെക്റ്റുകള് അതിന്റെ പല കോണുകള് ചിന്തിച്ചുകൊണ്ട് എഴുത്തുകാരന് എഴുതാൻ സാധിക്കുന്നതാണ് ഒരു വിഷയം ഒരു രീതിയില് മാത്രമല്ലല്ലോ കൊണ്ടുപോകാൻ സാധിക്കുക അതു തന്റേതായ രീതിയില് മറ്റൊരു രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് എഴുത്തുകാരൻ ചെയ്യേണ്ടത് ഇപ്പോള് സർഗാത്മക വെല്ലുവിളി അല്ലെങ്കില് ക്രിയേറ്റീവ് ബ്ലോക്കിനെ ഏറ്റവും വലിയ പരിഹാരമെന്നുള്ളത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്